ഞാൻ നെയ്ത്തും പഠിച്ചിട്ടുണ്ട് തുന്നലും പഠിച്ചിട്ടുണ്ട് അതായത് എന്റെ ചെറുപ്പകാലത്ത് നമ്മൾക്ക് ഇവിടെ വീട്ടിൽ നമ്മൾക്ക് സഹായിക്കാന് വരുന്നത് കുഞ്ഞമ്മ എന്നൊരു പ്രായമുള്ള ഒരു അമ്മയുണ്ടായിരുന്നു ആ പുള്ളിക്കാരി അവരൊക്കെ പായ നെയ്തു അതായത് നമ്മുടെ കൈതയിൽ നിന്ന് ഓല വെട്ടി അത് വെയിലത്ത് ഇട്ട് വാട്ടി ഉണങ്ങി അത് കീറി പൊളിയുണ്ടാക്കി അത് ചുറ്റിക്കെട്ടി എടുത്ത് ഇങ്ങനെ വച്ചേയ്ക്കും അത്കൊണ്ടു വന്ന് നമ്മൾക്ക് വലിയ വാ അതായത് നെല്ലൊക്കെ ഇടാന് പറ്റിയതായ വലിയ ചിക്കിവാ ഉണ്ടാക്കും അപ്പ അത് ഇവിടെ കൊണ്ടു വന്നു നമ്മുടെ വീട്ടിലിട്ടാണ് അവർ അതുണ്ടാക്കുന്നത് അങ്ങനെ ഉണ്ടാക്കുമ്പം നമ്മൾ കൂട്ടത്തില് പോയിരുന്നു കൊണ്ട് അത് കണ്ടു പഠിച്ചിട്ടുണ്ട് എന്നിട്ട് അത് കഴിയുമ്പം അവർ ചെറിയ പാ അന്നൊക്കെ പഴയ കാലത്ത് ആള്ക്കാരെല്ലാം പായയിലാണ് കിടന്നു കൊണ്ടിരുന്നത് തഴ പായ് അപ്പം അതിന് ചെറിയ തഴ കീന്തിയെടുത്ത് ചുറ്റിക്കെട്ടി എടുത്ത് വച്ചേക്കും അപ്പം ആ ചെറിയ തഴപ്പ ഉണ്ടാക്കാം നേരം അന്നേരവും ഞങ്ങൾ കൂടെ പോയിരിക്കും അവർ അങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഞങ്ങൾ കണ്ടു പഠിക്കും അങ്ങനെ ഞങ്ങളും ചെറിയ പായകൾ ഉണ്ടാക്കി അങ്ങനെ ശീലിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വള്ളി കുരുകിലിന്റെ വള്ളി ഒക്കെയെടുത്ത് ചീകിയെടുത്ത് നമ്മുടെ പറമ്പിലൊക്കെ ഉണ്ട് അതെല്ലാം അന്നത്തെകാലത്ത് ഇഷ്ടം പോലെ ഉണ്ട് ആ കുരികിലിന്റെ വള്ളി മുറിച്ചു കൊണ്ടു വന്നിട്ട് അത് വകഞ്ഞ് ചീകി അതിന്റെ മുട്ടും മുഴയും എല്ലാം കളഞ്ഞിട്ട് അത് പൊളിയാക്കിയിട്ട് എന്ന കൊട്ട നെയ്യും കൊട്ട നെയ്യുമ്പം അന്നെല്ലാം നമ്മൾക്ക് വേറെ മറ്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഇത് അപ്പോൾ ഇവർ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അറിയാനായിട്ട് നമ്മൾ അതിന്റെ കീഴേ പോയി ഇരിക്കും അവർ അത് ഉണ്ടാക്കുന്നത് കണ്ടു പഠിക്കും അവർ ഉണ്ടാക്കുമ്പം അതുപോലെ തന്നെ ഇപ്പുറത്തോട്ട് മാറി ഇരുന്നു നമ്മളും അത് എടുത്ത് അതുപോലെ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കും അങ്ങനെ അവർ കൊട്ട ഉണ്ടാക്കുന്ന കൂട്ടത്തില് നമ്മളും കൊട്ട ഉണ്ടാക്കും മുറം നെയ്യുന്ന കൂട്ടത്തിൽ അത് ഈറ്റ കൊണ്ടാണ് മുള മുറം ഉണ്ടാക്കുന്നത് ഈറ്റയുടെ പുളി കൊണ്ടു വന്നിട്ട് അത് കീന്തി നല്ല വൃത്തിയാക്കി വെയിലത്തിട്ട് ഉണങ്ങി അതെടുത്തിട്ടാണ് അകം പൊളി പുറം പൊളിയും ഒക്കെയായി ഇട്ടിട്ട് അവർ മുറം ഇങ്ങനെ കെട്ടും അന്നേരം നമ്മളും പോയി ഇരുന്നു അവരുടെ കൂട്ടത്തില് പോയിരുന്ന് ഇത് കണ്ടു അവർ ചെയ്യുന്നത് പോലെ തന്നെ നോക്കി കണ്ടു അതൊക്കെ ആ സമയത്തൊക്കെ ചെയ്യുമായിരുന്നു അതുപോലെ ചൂൽ കെട്ടുക ചൂൽ ചുഞ്ചാണി ചീകി അതിന്റെ ഇല എല്ലാം കളഞ്ഞിട്ട് ഒരു അഞ്ചോ എട്ടും പത്തും ചുഞ്ചാണി കൂട്ടി വച്ചിട്ട് പ്ലാസ്റ്റിക് കൂട്ടി അതിന്റെ നല്ല ഡിസൈൻ ആക്കി കെട്ടിയെടുക്കുന്ന അതൊക്കെ ശീലിച്ചിട്ടുണ്ട് അന്നത്തെ കാലത്ത് ഇന്ന് ഇപ്പം വന്നപ്പം നമ്മൾക്ക് അതിന്റെ ഒന്നും ആവിശ്യമില്ല ഇന്ന് ഇപ്പം അത് ചെയുന്നവരുമില്ല ഒന്നുമില്ല അങ്ങനെ നെയ്ത്ത് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ കൊട്ടയും മുറവും പായും ചൂലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും ചെയ്തു ശീലിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ തുണി തയ്ക്കുന്നത് ആ തുണി തയ്ക്കാൻ എനിക്ക് തൈക്കാൻ ഇഷ്ടമായിരുന്നു അതുകൊണ്ട് പോയി പോയി തയ്യൽ പഠിച്ചിരുന്നു അന്നത്തെ കാലത്ത് അമ്മമാരുടെ ചട്ട തയ്ക്കുമായിരുന്നു അതുപോലെ തന്നെ നമ്മൾക്ക് പിള്ളേര്ക്കുള്ളത് പാവാട പെറ്റിക്കോട്ട് ബ്ലൗസ് അങ്ങനെയുള്ളത് നൈറ്റി അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ തൈച്ചോന്ന് ഇന്നും നമ്മൾ ബ്ലൗസും എന്ന ചുരിദാറും പാവാടയും സ്കേട്ടും ഒക്കെ നമ്മുടെ ആവിശ്യത്തിനുള്ളത് എല്ലാം നമ്മൾ തയ്ച്ചെടുക്കുന്നുണ്ട് തയ്യൽ എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ് അങ്ങനെ തയ്യലും നെയ്ത്തും ഒക്കെ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടു പോവണ്ട പിന്നെ ഇന്നത്തെക്കാലം വന്നപ്പോഴത്തേക്ക് എല്ലാം മോഡേൺ ആയിട്ടുണ്ടല്ലോ അങ്ങനെ അല്ലെ നമ്മൾ പഴയ കാലത്തെ ആയത് കൊണ്ട് ആ പഴയ രീതിയിൽ കൂടെ ഇതെല്ലാം തയ്ച്ചും നെയ്തുമൊക്കെ എടുത്ത് വന്നിട്ടുള്ള കാലയളവാണ്